നീന്തൽ ആരോഗ്യത്തിനും ശാരീരികക്ഷമതയ്ക്കും ഏറ്റവും നല്ല ഒരു എക്സർസൈസ് കൂടിയാണ് നീന്തൽ നമുക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചലനം ലഭിക്കുകയും എല്ലാ പേശികൾക്കും മസില്കൾക്കും എക്സസൈസ് ചെയ്യുന്ന ഒരു ഏറ്റവും ഉത്തമ കായിക വിനോദമാണ്

പല സ്പോട്സ് കായിക വിനോദങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ചലനശേഷിയും എക്സസൈസും ലഭിക്കുന്നത് എന്നാൽ അതിൽനിന്ന് വ്യത്യാസമായി വ്യത്യസ്തമായി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് എക്സസൈസ് ലഭിക്കുന്നു എന്നുള്ളതാണ് നീന്തൽൻ്റെ പ്രത്യേകത ആയതുകൊണ്ട്തന്നെ ശരീരത്തിൻ്റെ മൊത്തം എക്സസൈസ് ലഫിക്കുന്നു എന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരുദിവസം അരമണിക്കൂറോ ഒരുമണിക്കൂറോ നീന്തലിന് വേണ്ടി മാറ്റിവെയ്ക്ക്ന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കായികക്ഷമതയ്ക്കും ആരോഗ്യത്തിനും ഏറ്റവും ഉത്തമമാണ് അതോടൊപ്പംതന്നെ നീന്തലിൽ നമ്മുടെ ശ്വാസസംബന്ധമായ എക്സസൈസ് കൂടി ലഭിക്കുന്നു ശ്വസനനിയന്ത്രണത്തിന് കൂടുതൽ സമയം ശ്വാസം അടക്കിപ്പിടിക്കുന്നതിനും റെഗുലർ ആയി ശ്വാസം ശ്വസന എക്സസൈസ് ന്നാത്തികൊണ്ട് മുങ്ങിയും പൊങ്ങിയും നമ്മൾ ചെയ്യുന്ന ഒരു ഉത്തമ എക്സസൈസ് ആയി നീന്തൽ മാറുന്നതുകൊണ്ട് നമ്മുടെ ശ്വസന പ്രക്രിയയിലും ഒരു എക്സസൈസ് അതിലൂടെ ലഭിക്കുന്നു ആയതിനാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ആരോഗ്യത്തിനും കായികക്ഷമതയ്ക്കും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഒരു ക്രമമായ പ്രവർത്തനത്തിനും വരെ നീന്തൽ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും നീന്തൽ പരിശീലിക്കുന്നതും തുടർച്ചയായി നമ്മുടെ ജീവിത ക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതും നമ്മുടെ ശാരീരികക്ഷമതയ്ക്കും കായികക്ഷമതയ്ക്കും സ്വയംരക്ഷയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രക്ഷയ്ക്കും എല്ലാംകൊണ്ടും ഉത്തമമായ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രവർത്തിയാണ് നീന്തൽ എന്നുള്ളതാണ് വസ്തുത ആയതുകൊണ്ട് സമസ്തമേഖലയിൽ എല്ലാവരും നീന്തൽ മിനിമം അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ സ്വായത്തമാക്കിയിരിക്കേണ്ട ഒരു കായികവിനോദമായി എല്ലാവർക്കും സ്കൂൾ വിദ്യാഭ്യാസമെന്നതുപോലെ നീന്തൽ പരിശീലനം ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആക്കി മാറ്റി ഉപയോഗപ്പെടുത്തേണ്ടതാണ്